ഞങ്ങളുടെടെ ഗ്രാമത്തിലൊക്കെ പ്രായമായ ആളുകൾ കിടപ്പിലായാൽ തന്നെ പലതരം കാരണങ്ങളാണ് ഉള്ളത് കുറെയൊക്കെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൻപത് ശതമാനം എന്ന് വെച്ചിട്ടൊണ്ടെൽ അൻപത് ശതമാനം അല്ല അറുപത് ശതമാനം എന്ന് തന്നെ പറയാം അറുപത് ശതമാനോം അതായത് അച്ഛനേം അമ്മേനേം മക്കൾ സ്വത്തൊക്കെ എഴുതിയെടുത്ത് അവരുടെ കല്യാണം കഴിഞ്ഞ് അവർക്ക് കുട്ടികളും കുടുംബോം കുട്ടികളൊക്കെ ആയിക്കഴിയുമ്പം നോക്കാത്ത ഒരുപാട് അമ്മേം അച്ഛനുമാരുണ്ട് അമ്മമാരും അച്ഛന്മാരും ഉണ്ട് അപ്പം അങ്ങനെ കുറെ പേർ കിടപ്പിലായത് അതായത് ഹോസ്പിറ്റലൊന്നും കറ കറക്റ്റ് ചികിത്സ അതായത് അവർക്ക് ചിലപ്പോൾ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കയായിരിക്കും ഇപ്പം കൈക്ക് വയ്യ കാലിന് വയ്യ നടക്കാൻ പറ്റില്ല പിന്നെ വണ്ടി വിളിക്കാനൊന്നും പൈസയില്ല ആ ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ അവർ വീട്ടിൽ തന്നെ കിടപ്പിലായിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൻപത് ഒരു നാ നാൽപ്പത് ശതമനോക്കെ വീട്ടിലിപ്പോൾ വീട്ടുകാർ നോക്കീട്ടും പിന്നെ അതായത് തീര പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവൂല്ലേ അപ്പോൾ അതായത് ഡോക്ടറുമാരും അതായത് ചികിൽസിച്ചിട്ട് കാര്യമില്ല എന്നൊരു മൈൻഡിൽ ഡോക്ടർമാർ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അപ്പം അതാണ് ചില ചിലതിലൊക്കെ അങ്ങനെയായിരിക്കും കിടപ്പിലാകുന്നത് എന്നാലവർ മരണം വരെ മക്കൾ നല്ല മക്കളാണെങ്കിൽ അവർ നോക്കുവോം ചെയ്യും